ആ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ തലയിൽ തേയ്ക്കാൻ ഒരു ഷാമ്പു മേടിച്ചായിരുന്നു എൻ്റെതാ മുടീന്ന് പറയുമ്പോൾ ഒരുപാട് ഞാനൊരുപാട് യാത്ര ചെയ്യുന്നുള്ളതു കൊണ്ട് ഈ പൊടിയും അല്ലാതെ ഇതക്കെ അടിച്ച് മുടിയെല്ലാം ഭയങ്കര ഡാമേജ് ആയി ഇരിക്കുകയാണ് അപ്പം അതിൽ നിന്ന് ഒരു കുറച്ച് ഇതാകാൻ നല്ലതാക്കാൻ വേണ്ടി ഞാനൊരു ഷാമ്പു മേടിച്ചായിരുന്നു ഒരു നല്ലൊരു ഷാമ്പു ആണ് നിവ്യെടെ ഒരു ഷാമ്പു ആണ് മേടിച്ചത് ഷാംപൂ അത്യാവശ്യം നല്ല നമുക്കൊരു ബഡ്ജെറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ യൂസ് ചെയ്യാനും എളുപ്പമാണ് നല്ല മണമാണ് നല്ല മണമൊക്കെ ഉള്ള നല്ല നല്ലൊരു ഷാമ്പു ആണ് മേടിച്ചത് അതിൻ്റെ വലിയ നമുക്ക് പാ സാദാരണക്കാർക്കും അഫേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരിത് എമൗണ്ട് ആണ് അതിനും ഭയങ്കര നല്ല ഒരു ഫ്രഷ്നെസ്സ് തരുന്ന ഒരു മണമാണ് പിന്നെ കൊള്ളാം നല്ല നമുക്ക് യൂസ് ചെയ്തിട്ടത് ഇത് നമുക്ക് ഇത് അറിയാനുണ്ട് നമുക്കതിനുള്ള മുടിയ്ക്ക് നല്ല ഷൈനിങെക്കെ കിട്ടുന്നുണ്ട് യൂസ് ചെയ്തതിൻ്റെ നമ്മളുടെ മുടീലറിയാനുണ്ട് നല്ല മുടിയക്കെ നല്ല കളറക്കെ ആയിട്ടൊണ്ട് മുടി കിളുക്കുന്നുണ്ട് മുടി കൊഴിയുന്നില്ല